ഈ ചില്ലറ ചില്ലറ അല്ലെങ്കിൽ മൊത്ത വ്യാപാരംന്ന് പറയുമ്പോ ഈ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് നമ്മുടെ അടുത്ത കാലത്തായി പച്ചക്കറികളുടെ പച്ച പലചരക്കുകളുടേം വിലയില് വന്ന മാറ്റങ്ങള് എന്ന് പറയുന്നത് ഈ അടുത്ത് നമുക്ക് പച്ചക്കറികളിലും എല്ലാം വളരെ അധികം വില കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഹോൾസെൽ ആൻഡ് റീറ്റെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ അതിനാത്ത് നമുക്ക് വളരെയധികം വിലക്കൊറവ് നമുക്ക് വെലക്കൊറവില് നമുക്ക് ഹോൾസെയിൽ വെലക്ക് നമുക്ക് സാധനം പർച്ചേസെയ്യാ പറ്റുന്നു അതായത് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയായിട്ട് വാങ്ങുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ഒരു തുണിക്കട തുണിക്കടയിൽ നമ്മളിപ്പോ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ തുണികൾ വാങ്ങുമ്പോൾ നമുക്ക് അയിനാത്ത് വളരെയധികം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും അല്ലാതെ നമ്മളിപ്പം റീറ്റെൽ ആയിട്ടുള്ള നമ്മള് കടേ പോയി നമ്മളൊരു അല്ലാതെ നമ്മളിപ്പം സിംഗിൾ പീസല്ലെങ്കിൽ അങ്ങനേക്കെ വാങ്ങുമ്പോൾ നമുക്ക് വെലയിൽ നമുക്ക് വെലക്കയറ്റാണ് ഉണ്ടാവുന്നത് പിന്നെ ഒള്ളതെന്ന് പറയുമ്പൊ നമുക്കീ പച്ചക്കറി അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ഇത് ഫുഡൈറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് ഈ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഈ മില്ലിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സില് പോയി എടുക്കുമ്പോൾ നമുക്ക് അതിന്റേതായിട്ടുള്ള വെല വ്യത്യാസുണ്ടാകും ഈ സാധനങ്ങളൊക്കെ ഈ പലചരക്ക് സാധനങ്ങള് അതായത് ഈ പാക്കറ്റ് ഐറ്റംസ് ഈ പൊടികള് മസാലപ്പൊടികളങ്ങനെയൊള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഈ പൊറത്തൂന്ന് അതായത് ഈ പിന്നെ തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥാലങ്ങളില് പോയി നമ്മള് ഡയറക്റ്റ് പർച്ചേസ് നടത്തുമ്പോഴ് നമുക്ക് വളരെയധികം പൈസ അയിനാത്ത് കൊറവ് കിട്ടും ഈ ഒത്തിരി നമ്മള് ഈ അല്ലാതെയുള്ള ഇവിടുള്ള കടകളിൽന്നൊക്കെ വാങ്ങുമ്പോഴ് ഫോ റീറ്റെയിലായിട്ട് നമ്മള് വാങ്ങുമ്പോഴ് പൈസയുടെ ഒരു എമ എമൗണ്ടിൻ്റെ ഒരു വ്യത്യാസം നല്ല രീതിക്ക് വരും അതായത് ഈ തുണിക്കടകളിലൊക്കെ ആണെങ്കി പോലും നമ്മള് ഡ്രസ്സ് നമ്മള് ബൾക്കായിട്ട് എടുക്കുമ്പത്തേനും അയിന്റെയായിട്ടുള്ള വ്യത്യാസം എമൗണ്ടിൽ കൊറവ് വെരും അല്ലാ നമ്മളിപ്പം റീറ്റെയിലായിട്ട് ഇപ്പം പൊറത്തൊന്നൊക്കെ പോയി എടുക്കാണെന്നുണ്ടെങ്കില് അയിന് നമുക്ക് ഈയൊരു എമൗണ്ടിനാത്ത് നമുക്ക് വെലിയൊരു വ്യത്യാസം അല്ലെങ്കി അങ്ങനൊന്നും കാണാൻ സാധിക്കത്തില്ല അപ്പ അത് ഒന്ന് റെന്ഡറ് ചെയ്യും ഈ എന്താണ് പറയ ഈ ഇതിനാത്ത് ഓൺലൈൻ ഷോപ്പിങ്ങ്ന്ന് പറയുമ്പം ഒരു സൈ ഒരു സൈഡിൽ നോക്കുമ്പോൾ അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് എന്നാൽ വേറൊരു സൈഡി നോക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ദൂഷ്യ ഫലങ്ങളുമുണ്ട് നല്ല ഫലങ്ങൾന്ന് പറയുമ്പൊ നമുക്ക് കൺവീനിയന്റായിട്ട്

ഷോപ്പുകളീ പോയി നമുക്ക് തെരക്കിട്ട് പോയി സാധനം വാങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട പക്ഷെ അതിലൂടെ വളരെയധികം ഈ കടകളിലെ കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ലാതാകുകയും അവരുടെ ഫാമിലീസിന് ഒരു ഇൻകം ജനറേഷനിലുള്ള ഓപ്പര്ച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അത് അതിനാത്ത് വളരെ അധികം കാര്യങ്ങള് ഒരു ദൂഷ ഫലമാണ് കാര്യം ഇപ്പോ എല്ലാവരും ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് പോകുന്നോണ്ട് ഈ ഷോപ്പുകളില് ഉള്ള കച്ചോടം വളരെയധികം കൊറഞ്ഞോണ്ടിരിക്ക്യാണ് അപ്പം അത് ഒരു ഇൻകം ഇൻക്വാളിറ്റിയിലേക്ക് കൊണ്ട് പോകാനും സാധ്യത കൂടുതലാണ് ഈ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എനിക്ക് ചീത്തവശങ്ങളും നല്ല വശങ്ങളുമായിട്ട് പറയാനുള്ളത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്